തിരുവനന്തപുരം തുടങ്ങി തൃശ്ശൂർ വരെയുള്ള ഏകദേശം ഉള്ള വാക്കുകളാണ് ഞാനിപ്പം പറയുന്നത് ഇപ്പം തൃശ്ശൂർ ഇപ്പം ട്രിവാൻഡ്രത്തു ചെന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണേ പിന്നെ അവരെല്ലാവരും ഒത്തിരിയേറെ പാടുന്നവരാണ് കേട്ടോ തന്നേ എന്നു ചോദിക്കും പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടു നീങ്ങിയാൽ പിന്നെ കൊല്ലം സൈഡിലേക്കു നീങ്ങുകയാണെങ്കിൽ നമ്മളോടു ചോദിക്കും എന്തര് എന്നു പറയും പിന്നെ തൃശ്ശൂർ ഭാഷയിലേക്ക് ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾക്കു സുഖമാണോ എന്തൂട്ട് സുഖം ആ പിന്നെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് വന്ന തമിഴ്നാട്ടിലേക്കു ചോദിക്കുമ്പോഴേ നമ്മളോടു ചോദിക്കും സുഖം തന്നേ എന്നു ചോദിക്കും പിന്നെ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കേ എവിടെ നമ്മൾ സുഖമാണോയെന്നു ചോദിക്കുമ്പം തമിഴ്നാട്ടിൽ ചോദിക്കുന്നത് നല്ലതായിരിക്കുമേ ആ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളൊന്നിരിക്കൂ ഇരിക്കെന്നു പറയുമ്പം തമിഴ്നാട്ടിൽ പറയുന്നത് ഒക്കാറ് അങ്ങന പല ഭാഷകളും എനിക്കറിയാവുന്നതു പോലെയൊക്കെ ചെയ്യും അല്ലാതെ ഫ്ലുവൻറ്റായിട്ട് ഇപ്പുടനെ കിട്ടുന്നില്ല ഭാഷകൾ പലതും നമുക്കറിയാം പിന്നെ ഓരോ സ്ഥലത്തും സാധനങ്ങൾ തന്നെ ഇപ്പം പനിക്കൂർക്കയെന്നു പറഞ്ഞാൽ ഈ നാട്ടിലൊക്കെ പറയുന്നത് നവരെലാന്നാണ് അപ്പിതൊന്നും നമുക്ക് ചിലഭാഷകളിലുള്ള വ്യത്യാസം